നമ്മുടെ പ്രദേശത്ത് എന്നു പറയുമ്പോൾ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അവർ എങ്ങനെയാണെന്ന് വച്ചുകഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഗതാഗത സൗകര്യങ്ങളൊക്കെ അവർ നല്ലരീതിയിൽ മെച്ചപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേയ്ക്ക് പോകുന്നതിനൊക്കെയായിട്ട് എളുപ്പത്തിൽ യാത്ര ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവർ റോഡുകളും കാര്യങ്ങളൊക്കെ നല്ല എന്താ പറയുക ക്ലിയർ ആയിട്ട് നീറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് നല്ല റോഡുകളൊക്കെ നല്ല വൃത്തിയാക്കി വരുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തന്നെ സ്കൂളുകൾ സ്ഥാപിക്കുക അങ്ങനത്തെ നല്ല നല്ല സഹായങ്ങളൊക്കെ ഇപ്പോൾ സമൂഹത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്യുന്നുണ്ട് പിന്നെ എന്താ പറയുക പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് റേഷൻ കട പോലുള്ള പൊതു വിതരണ സ്ഥലങ്ങളൊക്കെ സ്ഥാപിക്കുന്നുണ്ട് അപ്പോൾ പാവങ്ങൾക്ക് വേണ്ട ഫുഡ്ഡും കാര്യങ്ങളൊക്കെ അങ്ങനെ അവർ ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും അവരൊക്കെ ഒരു പൗരൻ എന്ന നിലയിൽ ഞങ്ങളെ സ്വാധീനിക്കാൻ കാരണമായിട്ടുള്ളത്